ഹലോ ഞാൻ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വണ്ടിയിൽ കയറിയിരുന്നു അപ്പം ഇറങ്ങാൻ നേരത്ത് എൻ്റെ ബാഗ് മറന്നുപോയി ആ ബാഗിലാണെങ്കിൽ കുറച്ച് പൈസയുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ നിങ്ങളെ സ്ഥലമെവിടെയാണ് ഞാൻ മറ്റേ അന്ന് നിങ്ങൾക്ക് ബാഗ് വണ്ടിയിൽ നിന്ന് ബാഗ് മറ്റേ സംഭവം എന്തെങ്കിലും കിട്ടിയിരുന്നോ അതിൽ കുറച്ച് കേഷും ഉണ്ടാരുന്നു അപ്പോൾ തിരിച്ചു കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങളെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നു തരാമോ അത് ഒന്ന് എത്രയും പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ഞാൻ മിനിഞ്ഞാന്ന് അതായത് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേ അന്നാണ് ആ വണ്ടിയിൽ വന്നത് അത് കോഴിക്കോട് ടൂ താമരശ്ശേരി അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇറങ്ങാൻ നേരത്ത് ബാഗ് മറന്നുപോയി അതുകൊണ്ട് അതു നിങ്ങളൊന്ന് തിരിച്ചു തരണം എന്നു പറയാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളും ഒന്നു തന്നിരുന്നെങ്കിൽ എനിക്ക് നേരിട്ട് വന്നു കാണാമായിരുന്നു നിങ്ങളെ നമ്പറ് ഇപ്പോൾ ഞാൻ കുറേ തപ്പി അന്വേഷിച്ചു കണ്ടെത്തിയതാണ് പക്ഷെ നിങ്ങളെ അഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് അതിനെപ്പറ്റി പറയാമോ